തീര്ച്ചയായും എന്റെ കുട്ടിക്കാലത്തെ ഇങ്ങനെയുള്ള പ്രവര്ത്തനങ്ങള് ഞാന് ഓര്ക്കുന്നുണ്ട് പാവകളെ ഉണ്ടാക്കുക മഴ സമയത്ത് കടലാസ് ബോട്ട് ഉണ്ടാക്കുക തുടങ്ങിയ പലതരമായും കരകൗശല വസ്തുക്കള് ഉണ്ടാക്കിയിട്ടുണ്ട് ഇതെല്ലാം നമ്മള് വിദ്യാഭ്യാസ കാലഘട്ടത്തില് തന്നെ പഠിക്കുന്ന ഒരു കാര്യമാണ് അപ്പം നമ്മളത് നമ്മുടെ സ്കൂളില് പഠിപ്പിക്കുന്നതിലുപരി സ്കൂളിൽ ചില സമയത്ത് നമുക്ക് അങ്ങനെയുള്ള ഒരവസരങ്ങള് കിട്ടുന്നുണ്ട് എന്നാല് എങ്കില് എങ്കിൽ കൂടി എനിക്കത് കൂടുതലായിട്ടും കിട്ടിത്തുടങ്ങിയത് മറ്റ് പ്രവര്ത്തന സംഘടനകള് വഴിയായിട്ടാണ് ഓരോ ക്ലബ്ബുകളും ആര്ട്സ് ആന്ഡ് സയന്സ് ക്ലബ്ബുകളും മറ്റും നമ്മുടെ ഗ്രാമപ്രദേശത്തുണ്ട് അതില് എന്നെ ഏറ്റവും കൂടുതലായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്നത് എന്നെ ഏറ്റവും കൂടുതൽ അതിനകത്തേക്ക് കൂടുതലാക്കിയിരിക്കുന്നത് സഹൃദയ ആര്ട്സ് ആന്ഡ് സയന്സ് ക്ലബ്ബുകാരാണ് എല്ലാ വെക്കേഷനും അതായത് കുട്ടികളുടെ അവധിക്കാലത്ത് വേനലവധിക്കാലത്ത് അവര് അവിടെ ഒരു ആഴ്ചത്തെ അല്ലെങ്കില് രണ്ട് ആഴ്ചത്തെ ക്യാമ്പ് പോലെ നടത്തി അവിടെ കുട്ടികളെ കൊണ്ടുപോയി ഈ ഈ ഈ രീതിയിലുള്ള കരകൗശല വസ്തുക്കള് നിര്മ്മിക്കാനും കുട്ടികളുടേതായിട്ടുള്ള ചിന്തകളും ആഗ്രഹങ്ങളും ഉണര്ത്തുന്നതും ഉണര്ത്തുന്ന തരത്തിലുള്ള പ്രവര്ത്തനങ്ങള് അവർ പണ്ടുമുതലേ കാഴ്ചവെച്ചിരുന്നു കുട്ടികളുടെ കഥ കവിത രചന പരിപോഷിപ്പിക്കുന്നതിനും മറ്റ് ഭാഷാ സ്നേഹികളെ കൊണ്ടുവന്ന് ക്ലാസ് നൽകുകയും മറ്റ് വിഷയങ്ങളില് അതായത് ആധുനിക കറന്റ് ആയിട്ട് നടക്കുന്ന ഓരോ കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ ബോധവല്ക്കരണ ക്ലാസ്സുകളായിട്ടും അങ്ങനെ പല കുട്ടികളുടെ ചിന്തകള് മറ്റു രീതിയില് മോശം രീതിയിലേക്ക് വഴിതെറ്റാതെ നല്ല രീതിയിലേക്ക് കൊണ്ടുവരാനായിട്ട് ആ ഒരു സംരംഭം വളരെയധികം എന്നെ സഹായിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ വെച്ച് നമ്മള് പാവ പാ പാവകളെ നിര്മ്മാണ പാവ നിര്മ്മാണം അതുപോലെ പാവകളി പാവക്കൂത്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ചും അതായത് നമുക്കറിവ് ഇല്ലാത്ത പക്ഷം ഉള്ള കുറേ കാര്യങ്ങളുണ്ട് പണ്ട് നടന്നിരുന്ന കുറേ കാര്യങ്ങൾ ഇപ്പോൾ ഇനി അതിനുള്ള ചാന്സുകൾ അങ്ങനെയുള്ള പല വിദ്യാഭ്യാസവും അല്ലാത്തതുമായിട്ടുള്ള പ നിരവധി ആക്ടിവിറ്റിസ് അവിടെ നടന്നിട്ടുണ്ട് കയറുകൊണ്ടുള്ള സാധനങ്ങള് ഉല്പ്പാദിപ്പിക്കുക ചവിട്ടി ഉല്പ്പാദിപ്പിക്കുക ചിരട്ട കൊണ്ട് കരകൗശല വസ്തുക്കള് നിര്മ്മിക്കുക ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ആ ഒരു സഹൃദയ ക്ലബ്ബ് എല്ലാ വര്ഷവും വേനലവധിക്കാലത്ത് ആരെയും നിര്ബന്ധിക്കുമൊന്നുമില്ല നമുക്ക് ഇഷ്ടമുള്ള കുട്ടികള്ക്ക് പോവാം ഒരു ഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മൾ കുറച്ച് നാൾ അവിടെ എല്ലാ കൂട്ടുകാരുമൊത്ത് എൻജോയ് ചെയ്ത് കളിച്ച് രസിച്ച് ഇങ്ങനെ ആക്ടിവിറ്റീസ് എല്ലാം ചെയ്ത് അങ്ങനെയൊരു ആക്ടിവിറ്റി ഇതുപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങള് ഈ സംഘടനകള് ചെയ്യുന്നത് ഏറ്റവും കൂടുതല് കുട്ടികൾ ഇൻഫ്ലുവൻസ്